ഹലോ ഹ്മ് അവിടെ ഈദിൻ്റെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഹ്മ് പിന്നെ നെയ്ക്കൊക്ക ഓഫർ ഉണ്ടോ നെയ്യ് പിന്നെ ഇങ്ങനത്തെ പൊടികൾക്കോ പൊടികൾ മസാല പൊടികൾക്ക് എനിക്ക് ഒരു കിലോ നെയ്ച്ചോറിൻ്റെ അരി വേണം ഞാൻ ഇങ്ങനെ വിളിച്ചതാണ് അപ്പം നിങ്ങളുടെ അവിടെ ഓഫർ ഉണ്ടെങ്കിൽ അങ്ങോട്ടേയ്ക്ക് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ് സ്ഥലം എവിടെ ആണെന്നാണ് പറഞ്ഞത് ഞാൻ പത്രത്തിൽ കണ്ടിട്ട് വിളിക്കുന്നതാണ് ആണോ റോഡ് സൈഡ് തന്നെ ആണോ

ആ ഓ വീട്ടിൽ എത്തിച്ചുതരും അല്ലേ എന്നാൽ നിങ്ങളുടെ അവിടെ ഉള്ള സാധനങ്ങളുടെ ഓഫറിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്ട്സ്ആപ്പിൽ ഫോട്ടോ അയയ്ക്കേ എന്നിട്ട് ഞാൻ നോക്കിയിട്ട് വിളിക്കാം ആ ശരി ഹ്മ്